കോഴി ഇറച്ചി ഉത്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് കോഴിയെ നമ്മൾ ആദ്യം വളർത്താൻ മേടിക്കുമ്പോൾ അതിന് ആദ്യമെ നമ്മൾ നോക്കുന്ന ഒന്നാണ് കോഴിയെ വളർത്തുമ്പോൾ ആവശ്യത്തിലധികം സ്ഥലമുണ്ടോ എന്നു നമ്മൾ അന്വേഷിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മൾ കോഴിയെ വളർത്താൻ മേടിക്കുക അതിനു ശേഷം അതിൻ്റെ ചുറ്റുപാടുകളും എല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളും ചെയ്തതിനു ശേഷം കോഴിക്ക് താ കോഴിയുടെ താറ താ മാ കോഴി നിൽക്കുന്നതിൻ്റെ തറകളിൽ നമ്മൾ വൈക്കോലും പിന്നെ പുറ്റു മണ്ണ് പിന്നെ അരക്കപ്പൊടി ഇതെല്ലാം കൊണ്ട് മിക്സാക്കിയിട്ട് നല്ലൊരു കോമ്പിനേഷനാക്കിയിട്ട് ഒരു മെത്തപ്പോലെ നമ്മൾ വിതറുകയാണ് ചെയ്യുന്നത് കാരണം കോഴിയുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ വളർ വർദ്ധിപ്പിക്കാൻ വേണ്ടി പെട്ടെന്നു രോഗികൾക്ക് കോഴീ പനികളോ അങ്ങനെ ഒരു അസുഖങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ് ഇത് വ വളരെ പ്രധാന ഒരു പങ്കു വഹിക്കുകയാണ് ഈ കോഴികളുടെ ഉത്പനത്തിൻ്റെ പ്രോസസ്സിന് അങ്ങനെ നല്ല രീതിയിൽത്തന്നെ നമ്മൾ കോഴികളെ നോക്കുകയും അതിനാവശ്യമായ ഹെൽത്തിയായിട്ടുള്ള തീറ്റ നൽകുകയും ചെയ്യുന്നു ഏതെങ്കിലും ഈ സമയങ്ങളിൽ ഏതെങ്കിലും കോഴിക്ക് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരസുഖം ബാധിക്കുകയോ എന്തെങ്കിലും ചെയ്യാണെ നമ്മൾ ആ കോഴിയെ മറ്റു കോളികളിൽ നിന്നു മാറ്റി പാർപ്പിക്കുകയും മറ്റു കോഴികളെ കോഴികൾക്കും ഇങ്ങനത്തെ അസുഖം വരാതെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കോഴികൾ ഒരു പരുവം എത്തിയതിനു ശേഷം എന്നു വെച്ചാൽ അതു വളർന്ന് ഇനി നമുക്ക് അതിനെ കൊന്ന് കറിക്കായിട്ടോ എന്തെങ്കിലും രീതികളിൽ എടുക്കേണ്ട പരുവമായി കഴിയുമ്പോഴത്തേയ്ക്കും നമ്മൾ ആ കോഴികളിനെ കശാപ്പ് ശാലകളിലേക്കോ അങ്ങനെ മറ്റു സ്ഥാപനങ്ങളിലോട്ട് നമ്മളതിനെ മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാറ്റിയതിനു ശേഷം നല്ല ഹെൽത്തിയായിട്ടുള്ള അല്ലാതെ വളർച്ച ഇല്ലാത്ത ശോഷിച്ച ആരോഗ്യമില്ലാത്ത അങ്ങനത്തെ കോഴികളെ അല്ല നല്ല ആരോഗ്യമുള്ള ഹെ ബെൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല വെയിറ്റുള്ള കോഴികളെയാണ് നമ്മൾ കശാപ്പ് ശാലകളിലേക്കു നൽകുന്നത് അതും കോഴികളെത്തന്നെ ഓരോ വ്യക്തികളുടെ ആവശ്യമനുസരിച്ച് തൂക്കുകയും അതിനു ശേഷം അതിനെ നല്ല രീതീ ക ക്ളീൻ ചെയ്ത് നല്ല ഹെൽത്തിയായിട്ടുള്ള മാംസമാണെന്നു നോക്കിയതിനു ശേഷം അതിനെ നല്ല രീതിക്ക് പാക്ക് ചെയ്ത് വരുന്ന ഉപഭോക്താക്കൾക്ക് അതു നല്ല രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം അതിൽ വഴി നമ്മൾ മറ്റുള്ളവരെ നമ്മളുടെ രീതിയിലുൾ നമ്മുടെ ഇടപാട് മറ്റുള്ളവരോട് അല്ലേൽ നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് നല്ല പാക്ക് പാക്കുകളായിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അത് ഒരു അറ്റ്റാക്റ്റീവാണ് നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനും നമ്മുടെ ഉത്പന്നം വർദ്ധിപ്പിക്കാനും അങ്ങനെ ഇതൊരു വലിയ പ വ വഴിത്തിരിവാണ് അത് വരുന്ന വ്യക്തികൾക്കു മാത്രമല്ല കടകളിലേക്കായാലും നമ്മളതിനെ നല്ല പാക്കറ്റുകളാക്കി കൊന്ന് കോഴികളെ കൊന്ന് നല്ല രീതി ക്ളീൻ ചെയ്ത് കവറുകളിലാക്കി പാക്ക് ചെയ്ത് എല്ലാ കടകളിലെത്തിക്കേണ്ടതാണെങ്കിൽ കടകളിലെത്തിക്കും അല്ലാതെ വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ ആ ഓൺ ദ സ്പോട്ടെ ഞാൻ തൂക്കി കൊടുക്കുകയും അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു നഷ്ടമില്ലാത്തൊരു പ്രോസസ്സാണ് നമ്മുടെ കോഴി വളർത്തൽ പ്രോസസ്സും അതിനുള്ള കശാപ്പ് ചെയ്യുന്ന രീതികളും പിന്നെ അതിൻ്റെ പരിസരങ്ങളെപ്പോഴും വൃത്തിയായി നോക്കുക ക്ളീൻ ചെയ്തതിനു ശേഷവും ആ ചുറ്റുപാടുകളൊക്കെ നല്ല ക്ളീൻ ചെയ്ത് വൃത്തിയായി ഇരിക്കുക ഒരു സ്മെല്ല് ഇല്ലാത്ത രീതികൾ എപ്പോഴും ആക്കണം രാവിലെ പണി തുടങ്ങിയിട്ട് വൈകുന്നേരം ഒന്നം എല്ലാ പണികളും തീർന്നതിനു ശേഷം നല്ല ആൻറ്റിസെപ്റ്റിക് ലോഷൻ കൊണ്ട് ക്ളീനാക്കുക മറ്റ് ഇത് മറ്റു രോഗിക മറ്റു കോഴികൾക്ക് എഫക്റ്റ് ചെയ്യാത്ത രീതിക്കുള്ള രീതിയിലുള്ളതായിരിക്കണം കാരണം ഈ സ്മെല്ലുകളോ അല്ലാതെ എന്തെങ്കിലും ചീത്ത സ്മെല്ലോ അങ്ങനെയൊക്കെ വന്നാൽ കോഴികൾക്ക് അസുഖമുള്ള ഉണ്ടാകാൻ സാദ്ധ്യത ഉണ്ടാകും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിക്കു തന്നെ നമ്മൾ ക്ളീൻ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എപ്പോഴും നല്ലതാണ് പിന്നെ തറ എപ്പോഴും നല്ല ഉണക്ക് ഉള്ളതായി നോക്കണം ഈർപ്പം അതാ ഉള്ളതാകാതിരിക്കാൻ നോക്കണം പിന്നെ എന്തെങ്കിലും കോഴികൾക്കുള്ളെങ്കിലും തറകളിൽ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ അപ്പപ്പോൾ സമയങ്ങൾ സമയങ്ങളിൽ മാറ്റി നല്ല രീതിക്കുള്ള കാക്കുകയും അങ്ങനെ എല്ലാ രീതികളിലും കോഴികളെ സംരക്ഷിക്കണം